ദൈനംദിന സംഭാഷണങ്ങൾ ഉപയോഗിക്കുന്ന മലയാള ഭാഷയിലെ ചില പൊതുവായ പദപ്രയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് എൻ്റെ എന്തുകൊണ്ട് പിന്നെ നമ്മൾ വീട്ടിൽ അമ്മേനെയൊക്കെ ഉണ്ടെങ്കിൽ ആ അമ്മയൊക്കെ ഉണ്ടെങ്കിൽ അമ്മേനെ പല ആവശ്യത്തിന് നമ്മൾ നൂറുവട്ടം വിളിക്കും അതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ളത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ എന്ന് പറയും നമ്മൾ പിന്നെ നമ്മൾ ആരോടെങ്കിലും എന്തേങ്കിലുമൊക്കെ ചോദിക്കുമ്പം പല പല വാക്കുകൾ ഉപയോഗിക്കും പിന്ന അങ്ങനത്തെ പദ പ്രയോഗങ്ങൾ ഒക്കെ ഉപയോഗിക്കും കൂടുതൽ അതുകൊണ്ട് ഇതുകൊണ്ട് എന്നെ എൻ്റെ നമുക്ക് ഞാൻ അങ്ങനെ ഉള്ളതൊക്കെയാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കാറ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മലയാളത്തിൽ തന്നെ ആണല്ലോ എല്ലാം സംസാരിക്കുന്നത് മലയാളത്തിലാണ് അതായത് ഓരോ വാക്കുകളും നമുക്ക് റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയിട്ട് മലയാളത്തിൽ കേൾക്കാൻ പറ്റും പിന്നെ ആ മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഉണ്ട് വാക്കുകൾ ഇനിയും നമ്മൾ പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് തീരാൻ പറ്റില്ല നമ്മൾ പറയുന്ന വാക്കുകൾ തന്നെ നമ്മൾ എത്രയോ വട്ടം റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയി റിപ്പീറ്റ് ആയിട്ട് പറയാനുള്ള ഒരു ഇതുണ്ട് അതാണ് നമ്മൾ മലയാള ഭാഷയൊക്കെ ദൈനംദിന സാഹചര്യത്തിൽ ഉപയോഗിക്കുന്നത്